മലയാള ഭാഷ ഈ പ്രദേശത്ത് അങ്ങനെ ഒരു സാധാരണ രീതിയില് ഇന്ത്യയിലെ ഒരു അത്യാവശ്യം അതായത് ഏറ്റവും പഴക്കംച്ചെന്ന ഭാഷയെന്ന് പറയുന്നത് തമിഴാണ് അപ്പോള് തമിഴിനെ ചുവടുപിടിച്ചിട്ടാണ് അത് ഏറ്റവും പൗരാണികമായ ഭാഷ സംസ്കൃതമാണ് അതിൻ്റെ ചുവടുപിടിച്ചിട്ട് ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ സംസ്ഥാനങ്ങൾ തിരിക്കുമ്പോള് അവസാനം രൂപംകൊണ്ട ഒരു ഒരു സംസ്ഥാനമാണ് കേരളമെന്നുള്ള രീതിയിലാണ് ഉള്ളത് കാരണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് വന്ന് തമിഴിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണെന്നാണ് പറയപ്പെടുന്നത് മലയാളം എന്നുപറയുന്ന ഭാഷ അതുകൊണ്ടുതന്നെ മലയാള ഭാഷ മറ്റുള്ള ഭാഷകളെ എഫക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായി മറ്റുള്ള ഭാഷകള് മലയാള ഭാഷയെയാണ് എഫക്ട് ചെയ്തിട്ടുള്ളത് കാരണം മലയാളത്തിലേക്ക് ഒരുപാട് രീതിയിലുള്ള വാക്കുകൾ കടമെടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന പോർച്ചുഗീസുകാരുടെ അധിനിവേശവും അതുപോലെതന്നെ ഇംഗ്ലീഷുകാരുടെ കടന്നുകയറ്റവും പല മലയാള മലയാളത്തിൽ പല മാറ്റങ്ങളുമുണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണം പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഇവിടെ കുറെ കലാരൂപങ്ങൾ വരികയും അതിനോട് സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളുണ്ടാവുകയും ഇംഗ്ലീഷുകാരുടെ വരവോടു കൂടി ഇംഗ്ലീഷിൽ നിന്ന് കുറച്ച് വേഡുകൾ ചെറിയ ചെറിയ വാക്ക് വ്യത്യാസങ്ങളോടുകൂടി കേരളത്തിൽ വരികയും അതുപോലെ തന്നെ ചില സ്ഥലപ്പേരുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ള ഭാഷകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ സോറി കേരളത്തിൽ സംഭവിക്കുന്ന സംഭവമാണ് അതല്ലാതെ മലയാള ഭാഷയെയല്ല എഫക്ട് ചെയ്തത് മലയാള ഭാഷയെന്ന് പറയുന്നത് മറ്റുള്ള ഭാഷകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതായതുകൊണ്ട് തന്നെ മലയാള ഭാഷ മറ്റുള്ള ഭാഷയെ എഫക്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് വളരെ കുറവാണ് പ്രധാനമായിട്ടും തമിഴ്നാട് ഭാഗങ്ങളിലേക്ക് കുറച്ചൊക്കെ മലയാള ഭാഷ തിരിച്ചൊരു എഫക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് എനിക്ക് മനസിലാക്കാന് കഴിയുന്നത് കാരണം മലയാളത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ തമിഴ് തമിഴിൽ മറ്റ് സെയിം വാക്കുകൾക്ക് തന്നെ തമിഴിൽ മറ്റൊരു അർത്ഥമായിരിക്കാം പക്ഷേ എന്നാൽ അത് മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് തിരിച്ചുപോയി അത് മലയാളികൾ മനസ്സിലാക്കുന്ന അതെ അർത്ഥത്തിൽ തമിഴന്മാർ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ അത് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് ഇപ്പോളത്തെയൊരു കണ്ടീഷൻ അങ്ങനെയൊക്കെയാണ് അല്ലാതെ ഈ മറ്റുള്ള മലയാള ഭാഷയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ചലനമുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല മലയാള സാഹിത്യത്തിന് വളരെയധികം ചലനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മലയാള ഭാഷയ്ക്ക് മറ്റു ഭാഷകളുടെ വികാസത്തെ അങ്ങനെ സ്വാധീനിച്ചിട്ടില്ലെന്നാണ് എന്റെയൊരു അഭിപ്രായം പക്ഷേ മറ്റുള്ള ഭാഷകൾ അതായത് വിദേശ ഭാഷകൾ മറ്റുള്ള വിദേശ ഭാഷകൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ നിന്നും കേരളത്തിലെത്തി അത് ഒരുപാട് രീതിയിൽ മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ അതന്ന് അത് അതിന്റെയകത്തുനിന്ന് പലവിധത്തിലുള്ള വാക്കുകൾ കടമെടുക്കുകയും പല സ്ഥലപ്പേരുകൾ ഇപ്പോള് ഈ കൊയിലാണ്ടി എന്നുള്ളൊരു സ്ഥലപ്പേരുണ്ട് കേരളത്തിലുള്ള സ്ഥലപേരാണ് ആ സ്ഥലപ്പേരെന്ന് പറയുന്നത് ക്യുലാണ്ടി എന്നുപറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് സോറി ഇംഗ്ലീഷുകാരൻ നൽകിയൊരു പേരിൽ നിന്നും വന്ന ഒരു പേരാണ് കൊയിലാണ്ടിയെന്നുള്ളത് അത്തരത്തിൽ മറ്റുള്ള ഭാഷകൾ മലയാള ഭാഷയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ മലയാള ഭാഷ പ്രധാനമായിട്ടും ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ തമിഴ് എന്നൊരു ഭാഷയുമായി കുറച്ചൊരു സാമ്യമുള്ളതിനാൽ കുറച്ചൊക്കെ നല്ലൊരു സാമ്യമുണ്ട് അപ്പോള് ആയതിനാൽ ആ കുറച്ചൊക്കെ തമിഴ്നാടിൻ്റെ ഒരു ഭാഷയെ ചില ചെറിയ രീതിയിലൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് മനസിലാക്കുന്നത്